നമ്മുടെ രാജ്യത്ത് അടുത്തിടെ അല്ല കുറെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മടെ രാജ്യം വളരെയേറെ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ ഒരു കാലത്ത് ജനങ്ങളെല്ലാം ഒത്തൊരുമയോട് കൂടി പോയിക്കൊണ്ടിരുന്ന അതായത് മനുഷ്യനെ മനുഷ്യനെ തിരിച്ചറിയാവുന്ന ഒരു കാലമുണ്ടായിരുന്നു എൻ്റെ മുന്നിൽനിൽക്കുന്നതൊരു മനുഷ്യനാണെന്നും എന്നേപ്പോലെ വികാരങ്ങളും വിചാരങ്ങളുമുള്ളൊരാളാണെന്നും തിരിച്ചറിയാവുന്ന പരസ്പരം തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം നമ്മുടെ സമൂഹത്തില് ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇന്നതെല്ലാം മാറിയിരിക്കുവാണ് ഒരു ഒരൂ തെരിവ് പട്ടിയുടെ വിലപോലുമില്ലാതെ മനുഷ്യൻ്റെ ജീവന് വിലയില്ലാത്തെയൊരു ഒരു രാജ്യമായി അല്ലെങ്കിലൊരു സമൂഹമായി നമ്മളിൽപ്പലരും മാറിയിരിക്കുകയാണ് മുന്നിൽ നിൽക്കുന്നവനെ ഒരു ത് ത് ഒരു കനിവും കാണിക്കാതെ വെട്ടിക്കൊല്ലുവാനും അവനെയേത് രീതിയിൽ വേണമെങ്കിലും വകവരുത്തുവാനും തക്ക മാനസികാവസ്ഥ ഉള്ളൊരു സമൂഹം ആണിന്ന് വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അത് വലിയവരിലാണേലും നമ്മുടെ യുവ തലമുറയിലാണെങ്കിലും അങ്ങനെയൊരു വലിയ വിപത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ വിപത്ത് നമ്മള് പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം കാണുന്നതാണല്ലോ പരസ്പരം മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും എന്തെല്ലാം അവസ്ഥകളിലൂടെയാണ് മനുഷ്യൻ കൊലചെയ്യപ്പെടുന്നത് മനുഷ്യബന്ധങ്ങൾക്ക് വിലയില്ലാതെയും മനുഷ്യൻ്റെ സ്നേഹത്തിന് വില ഇല്ലാതെ കുടുംബബന്ധങ്ങൾക്ക് വില ഇല്ലാതെ അപ്പനാരെന്നോ അമ്മയാരെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത മക്കളും മക്കളെ തിരിച്ചറിയാൻ കഴിയാതെ നാടും വിട്ടും വിട്ടു മറ്റുള്ളവരുടെ കൂടെ ഓടിപ്പോകുന്ന അപ്പനും അമ്മയും അങ്ങനെയൊരു ഒരു ഒത്തൊരുമയില്ലാത്ത ഒരു ചേർച്ചയില്ലാത്ത സമൂഹം വളർന്ന് കൊണ്ടിരിക്കുകയാണ് എത്രയെത്ര ദുരന്തവാർത്തകളാണ് നമ്മളോരോ ദിവസവും കേൾക്കുന്നത് കുടുംബത്തിൻ്റെ പ്രശ്നങ്ങള് കാരണം മരി ആത്മഹത്യ ചെയ്യുന്നവര് കുടുംബത്തെ മൊത്തമായി തീർത്ത് കളയുന്ന മക്കള് ലഹരിക്കടിമപ്പെട്ട് സ്വന്തം വ്യക്തിത്വമോ സ്വന്തം അപ്പനെയോ അമ്മയെയോ ബന്ധങ്ങളെയോ തിരിച്ചറിയാൻ കഴിയാതെ കൊലപാതകങ്ങളും ആക്രമങ്ങളും നടത്തി ഒരു ദുഷിച്ച സമൂഹം വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന സാഹര്യത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഇതിനെതിരേ ഒരു അച്ചടക്കപരമായ നടപടിയെടുക്കാനൊരു സർക്കാരും മുന്നോട്ട് വരുന്നതായിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട് നമ്മുടെ സാ രാജ്യമിന്ന് ശെരിക്കും പറഞ്ഞാൽ ഒരു അടിമത്തം എന്തടിമത്തമാണ് ഡ്രങ്ക്സിൻ്റെ ശെരിക്കും പറഞ്ഞാൽ മയക്കുമരുന്ന് എം ഡി എം എ കഞ്ചാവ് കാഷിഷ് എന്തെല്ലാം മയക്കുമരുന്നിൻ്റെ വിവിധ രൂപത്തിലുള്ള സാധനങ്ങളാണ് യുവ ജനങ്ങളുടെ ഇടയിലും വിതരണം ചെയ്യപ്പെടുന്നത് കഴിക്കുന്നത് ക്യാമ്പ് ക്യാമ്പസ്സുകൾ സമൂഹങ്ങള് എന്തെല്ലാം വിപത്തുകളിലേക്കാണ് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ് ഇതിനൊരു മാറ്റം വരണ്ടതും നമ്മുടെ സമകാലികമായ അവസ്ഥയനുസരിച്ച് ജീവിച്ച് പോകാന് നമ്മുടെ യുവതലമുറയെ വാർത്തെടുത്ത് അവരെയതിന് സജ്ജമാക്കി പഠിപ്പിക്കേണ്ടതും നമ്മുടെ ഏറ്റവും വലിയ കടമ ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ സ്കൂളുകൾ കോളേജുകൾ അങ്ങനെ പല ഹോസ്റ്റലുകൾ ഏതെല്ലാമേഖലകള് ഇതിപ്പം നമ്മുടെ യുവതലമുറയെ ആണ് ലഹരി ശെരിക്കും ബാധിച്ചിരിക്കുന്നത് അവര് തീർന്ന്പോയാൽ നമുക്ക് മുന്നോട്ടില്ല പിന്നെയൊരു ഭൂമിതന്നെ ഉണ്ടോ നമ്മുടെ യുവതലമുറ അവസാനിച്ചാല് നമ്മുടെ ലോകം അവസാനിക്കുകയാണ് ശെരിക്കും പിന്നേ മുന്നോട്ട് നമുക്കൊരു ചലനം അസാധ്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത് നമ്മുടെ മക്കളും നല്ലരീതിയിൽ വളർന്ന് വരേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഇപ്പോൾ നമ്മളേറ്റവും കൂടുതൽ കേൾക്കുന്ന വാർത്തയും അത് തന്നെയാണ് നമ്മുടെ യുവതലമുറ ലഹരിക്ക് അടിമപ്പെട്ട് പലവിധ അക്രമങ്ങളും കൊലപാതകങ്ങളും എന്തും കാണിച്ച്കൂട്ടാനുള്ളൊരു മാർഗ്ഗമായി ജീവിതത്തെ കണ്ട് സ്വന്തം ജീവിതം വെറും അഴുക്ക് ചാലിലേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങൾ കാണിച്ച് കൂട്ടുന്ന അതിക്രമങ്ങൾ മൂലം മാതാപിതാക്കൾക്ക് കുടുംബത്തില് മറ്റ് സമൂഹത്തിലുണ്ടാകുന്ന വിപത്തുകൾ ധാർമ്മികമായ അധഃപതനങ്ങൾ എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് ഒരുപാടൊരുപാട് അപ്പുറത്തേക്കാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം നമ്മുടെ രാഷ്ട്രീയമായ കാഴ്ച്ചപ്പാട്കള് ഒരുപാട് മാറിപ്പോയിരിക്കുന്നു ഭരിക്കുന്ന നേതാക്കന്മാരും അവരുടെ അനിയായികളും എങ്ങനെ അവരുടെ സമൂഹത്തെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് ഒട്ടും അറിയാമ്മേലാത്തൊരു സാഹചര്യത്തിലേക്ക് കാണ ഓരോ വർഷം തോറും ഓരോ ഓരോ ഭരണചക്രങ്ങള് കടന്ന് വരുന്നതിന് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഒരു ജനത്തെ നയിച്ച്കൊണ്ട് മുന്നോട്ട് പോകണം എന്നവര് ഒരിക്കലും ചിന്തിക്കാറില്ല അവർക്ക് അവരുടേതായ കാര്യങ്ങളിലേക്ക് മാത്രമവർ ഒതുങ്ങിപോയി ജനങ്ങളെങ്ങനേങ്കിലും ജീവിച്ചോട്ടെ എന്തക്രമം കാണിച്ചാലും എന്ത് വിപത്തുണ്ടായാലും അതൊരിക്കലും നമ്മുടെ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്നവരെയോ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലാത്തവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറി ഇരിക്കുകയാണ് മെയിൻ ആയിട്ട് സംഭവിച്ചിരിക്കുന്നത് പരസ്പരം തിരിച്ചറിയാൻ മേലാതെ അതായത് മനുഷ്യർക്ക് മനുഷ്യരെ തിരിച്ചറിയാമ്മേലാത്തൊരവസ്ഥേലേക്ക് മാറിയിരിക്കുന്നത് വളരെ വേദനാജനകമായ ഒരു അവസ്ഥയായിട്ട് പലപ്പഴും തോന്നിയിട്ടുണ്ട്